ആ ഹലോ ഇത് ഞാൻ അഞ്ചൽ നിന്ന് വിളിക്കുകയാണ് ഞാൻ എൻ്റെ പാൻ കാർഡ് അബദ്ധത്തിലൊന്ന് കീറിപ്പോയി കേട്ടോ അതിൻ്റെ ഒരു റീപ്രിൻറ് എനിക്ക് വേണമായിരുന്നു അതിന് ഞാൻ എന്തോ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞ് തരാമോ അത് പാൻ കാർഡ് എനിക്ക് അതിൻ്റെ റീപ്രിൻ്റ് വേണമെങ്കിൽ അത് എന്തൊക്കെ ഞാൻ എന്തൊക്കെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സുകളാണ് ഞാൻ കൊണ്ടു വരേണ്ടത് എന്തൊക്കെ പ്രൂഫ് വേണം എന്ന് എനിക്കൊന്ന് പറഞ്ഞ് തരാമോ അത് പിന്നെ റീപ്രിൻ്റ് അതിന് നമ്മുടെ ആ ആധാർ ആധാറ് കാർഡ് മതിയോ പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എന്തൊക്കെ വേണം എന്നൊന്ന് പറഞ്ഞ് തന്നിരുന്നെങ്കിൽ എനിക്ക് അത് ഒരു പെട്ടെന്ന് കിട്ടത്തക്ക വിധത്തിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് അപ്പോൾ എനിക്ക് അതൊന്ന് ഹ സഹായം ചെയ്ത് തരണം എന്ന് വളരെ വിനീതമായിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് അതിൻ്റെ ഒന്ന് പറഞ്ഞ് തരണമേ പ്ലീസ്